ഹലോ

ആ ആ ആ സ്മൃതി അല്ലേ ആ ആ ഞാൻ അഞ്ജിതയാണ് ആ നമ്മളൊരു ഡിസ്കഷൻ പറഞ്ഞിരുന്നു ഒ ടി ടി പ്ലാറ്റ്ഫോമിനെക്കുറിച്ച് അതിൻ്റെ ആ വ്യൂഷിപ്പ് റേസാവുന്നതിനെക്കുറിച്ച്

എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ കോവിഡൊക്കെ കഴിഞ്ഞതിന് ശേഷം തീയേറ്ററിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ ആൾക്കാർ ഒ ടി ടി ചൂസ് ചെയ്തുയെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം ഞാൻ പേർസണലി പണ്ട് കോവിഡിനൊക്കെ മുമ്പ് തീയേറ്ററ് പോയി സിനിമ കാണുന്ന ആളാണ് പക്ഷേ ഇപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ തന്നെ കംഫർട്ടിലിരുന്ന് സിനിമ കാണാനൊക്കെ സാധിക്കുമ്പോൾ അതല്ല ചൂസ് ചെയ്യുന്നത് അതുകൊണ്ട്

അപ്പോൾ വ്യൂഷിപ്പ് കൂടുന്നുള്ള കൂടുതൽ ആൾക്കാരിലേക്ക് എത്താനും സഹായിക്കുന്നുണ്ട് കാര്യം തീയേറ്ററിൽ പടം ഫ്ലോപ്പാണെങ്കിലും ഒ ടി ടി വരുമ്പോൾ ആ പടം ഒരുപാട് ആഘോഷിക്കപ്പെടുന്നുണ്ട് അതെ നമുക്ക് കിട്ടുന്നുണ്ട് ആ അതിന് അതും ആയിട്ട് ബന്ധപ്പെട്ട സാമ്പത്തികം കുറവാണ് ചിലവ് കുറവാണ് അതുമാത്രം അല്ല പ്രത്യേകിച്ചിപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ വർക്ക് ചെയ്യുന്ന മലയാളികളുണ്ടെങ്കിൽ അവിടുത്ത തീയേറ്ററിൽ മലയാളം സിനിമ വരണം എന്നില്ലല്ലോ അങ്ങനെ ഉള്ളവരും ഇങ്ങനെ ഉള്ളൊരു പ്ലാറ്റ്ഫോം ആശ്രയിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാവരിലേക്കും എത്താൻ സഹായിക്കും ഒ ടി ടി പ്ലാറ്റ്ഫോം

അതെ അതെ അതെ അതാണ് ഞാനും അതിനോട് യോജിക്കുന്നു ഒ ടി ടി ഇപ്പം മാറി വരുന്നു മാറുന്ന ഒരു സാഹചര്യത്തിലും ഡിജിറ്റൽ ഇപ്പോൾ ഫൈവ് ജി ഒക്കെ വരുന്നൊരു സാഹചര്യത്തിൽ ഇനിയും ഇത് വളരാനാണ് കൂടുതൽ സാധ്യത ഉള്ളത് ഇപ്പം തീയേറ്ററിൽ പോലും ഇറങ്ങാതെ ഉള്ള സിനിമകളും സിരീസുകളും ഒ ടി ടി തന്നെ കേന്ദ്രീകരിച്ച് ഇറങ്ങുന്നുണ്ട് അപ്പോൾ അതൊരു നല്ല മാറ്റം ആണ് അതെ

അതെ അതെ

അതെ അതെ അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം സ്മൃതിയിടെ ആ ഒരു വ്യൂ പോയിൻ്റ് അറിയാൻ സാധിച്ചതിൽ ആ ഓക്കെ താങ്ക് യൂ ബൈ ആ ബൈ താങ്ക് യൂ